എൻ്റെ കയ്യിലൊക്കെ ആദ്യമായിട്ടുണ്ടായിരുന്ന ഫോണിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാ കീപാഡ് ഉള്ള ഫോണുകളായിരുന്നു ആ ഫോണുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ സവിശേഷതകൾ ഉണ്ട് പ്രത്യേകതകളുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യമായിട്ടൊരു ഫോൺ ഇറങ്ങുമ്പോൾ എൻറ്റേൽ ബി പി എൽ സാനിയാന്നും പറഞ്ഞിട്ട് ഒരു തടിച്ച ഒരു വയൽസ് വയർലെസ് സിസ്റ്റം പോലെയുള്ള ഒരു ഫോൺ ആണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് അത് ആ കാലത്തിൻ്റെ ഘട്ടത്തിൽ വച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമായിട്ടാണന്ന് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് അന്ന് വരെ കേബിള് വഴിയായിട്ട് ബീ എസ് എൻ എൽ വഴിയായിട്ടുള്ള ഫോണുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ് വീടുകളിൽ ഇത് കടന്നു വന്നത് കണ്ടപ്പോൾ ഒരു വയറ് സംവിധാനം ഇല്ലാതെ ഒരു കേബിൾ സംവിധാനം ഇല്ലാതെ അങ്ങോട്ടു മിങ്ങോട്ടും ഒക്കെ മാറിനിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വന്നപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്ചര്യമായിട്ടാണ് ആദ്യം തോന്നിയത് പിന്നീട് കാലഘട്ടത്തിൻ്റെ പുരോഗമനം ഈ പറഞ്ഞതു പോലെ ഈ സംവിധാനങ്ങൾ വഴിയായിട്ടുള്ള പുരോഗമനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നുവന്ന് കഴിഞ്ഞപ്പോഴും മാറ്റപ്പെടുകയുണ്ടായി പിന്നീട് ആ ഫോണ് മാറി നമ്മൾ പിന്നെ മാസമുള്ള വിൽ തുകയിൽ നിന്ന് അത്യാവശ്യം അന്നത്തെ സമയത്ത് ഒരു സാധാരണ കീപാഡ് ഫോണിലൂടെ പത്ത് രൂപ മുതൽ റീചാർജ് ചെയ്ത് ചെയ്ത് ഉപയോഗിക്കുന്നവർ സംവിധാനം കടന്നുവന്നു വന്നായിരുന്നല്ലോ ആ ആ സമയത്ത് ആ ഫോണ് ഉപയോഗിച്ചു പിന്നീട് ആ ഫോണുകളൊക്കെ കാലക്രമേണ ചെറുതും വലുതുമായ മനുഷ്യൻ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഉപകാരപെടത്തക്ക രീതിയിലേക്ക് ആ കീപാഡ് ഫോണുകളൊക്കെ മാറ്റപ്പെട്ടു ആ ഫോണുകൾ നിന്നും വ്യത്യസ്തമായിട്ട് പിന്നീട് ഓരോ കാലഘട്ടങ്ങളിൽ പല കമ്പനികൾ മോഡലുകൾ ആയിട്ട് ഒക്കെ ഇറക്കി പലരും ഇതിൻ്റെ ഉപയോഗത്തെക്കാൾ ഉപരി മോഡലുകളെ തന്നെ ആശ്രയിച്ച് എത്ര വില കൊടുത്തും മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെതായ കയ്യിലെ പണത്തിൻ്റെത് അനുസരിച്ച് ഓരോരുത്തരും അവരുടെതായ രീതിയിലുള്ള ഫോണുകൾ സ്വന്തമാക്കി ആ കൂട്ടത്തിൽ നമ്മൾ നമ്മളുടെതായ സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനപ്പെടുത്തി പ്പെടുത്തി ഫോൺ സ്വന്തമാക്കി ഉപയോഗിച്ച് വന്നു അതിനുശേഷം മറ്റുള്ളവർ അല്പം കൂടെ ഉയർന്ന ചിന്തയിലേക്ക് കടന്ന് വന്നപ്പോൾ സ്മാർട്ട് ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വിപണിയെ കീഴടക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ കാലഘട്ടത്തിലേക്ക് അതിനെ ഒരു പുച്ഛം ആയിട്ട് തോന്നിയിരുന്നു സർവ്വ സമയവും ഫോണിൽ കുത്തിക്കളിക്കുക അല്ലെങ്കിൽ ഫോണിൽ തോണ്ടി കളിക്കുക എന്നുള്ളൊരു പരിഹാസം രീതിയിൽ തന്നെ അതിനെയൊക്കെ കണ്ടു പക്ഷേ ഏറെ താമസിയാതെ അതുപോലുള്ള സ്ഫോണുകളുടെ ആവശ്യകത നമ്മുടെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ വേണ്ടിവന്നു പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായത് കൊണ്ട് ബാങ്കിലൊക്കെ സ്ഥിരം ചെല്ലുമ്പോൾ അവർ സ്ഥിരമായിട്ട് പറയാറുണ്ട് അത് നിങ്ങൾക്കൊരു ഫോൺ മേടിച്ചിട്ട് ഇതൊക്കെ ഫോണിലൂടെ ചെയ്തുടെ എന്തിനാണ് ഇവിടെ ലൈൻ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണിവിടെ നിങ്ങൾ ഈ കാത്തു നിന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നത് പലകാര്യങ്ങളും ഫോണിലൂടെയൊക്കെ ചെയ്യാം ആദ്യമൊക്കെ എതിർപ്പായിരുന്നെങ്കിലും അതിനോട് പുച്ഛം ആയിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിച്ചിരിക്കുന്ന കൊണ്ടും പ്രത്യേകിച്ച് അത് ഉപയോഗിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു മനസിലെ സ ഒരവസ്ഥ വന്നപ്പോൾ നമ്മളത് ഉപയോഗിക്കേണ്ട ആ ഫോൺ വേണ്ട ഈ ഫോൺ മതി എന്നുള്ള കട്ടായത്തിൽ തന്നെ നിൽക്കയാണ് വളരെ താമസിച്ച് നമ്മുടെ ഇടയിൽ താഴെക്കിടയിലുള്ള ഒരുപാട് പേർ ഈ ഫോണുമായിട്ട് പ്രത്യേകിച്ച് ഉപയോഗത്തിലെ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്തായാലും കാലഘട്ടത്തിൻ്റെതും സാഹചര്യത്തിൻ്റെയും അനുസരിച്ച് ഈയൊരു സ്മാർട്ട് ഫോണിലേക്കും ആൻഡ്രോയിഡ് ഫോണിലേക്കും ഒക്കെ മാറ്റപ്പെടേണ്ടി വന്നു ഇന്നത്തെ സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ ഈയൊരു ഫോൺ നമ്മുടെ കൈവശമില്ലാതെ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല പ്രത്യേകിച്ച് ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ഫോൺ പേ പോലുള്ള സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ഇത് വഴിയായിട്ട് ഉപകാരപ്പെട്ടു വന്നു അതുപോലെ ബാങ്കിംഗ് സംവിധാനങ്ങൾ അങ്ങോട്ട് പൈസ ട്രാൻസർ ചെയ്യുക മറ്റുള്ളവരുടെ പൈസ സ്വീകരിക്കുക ഇതൊക്കെ ഒരു വലിയ ഉപകാരമായിട്ട് ആണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് ഈ തോന്നിയിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യ കുറിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കുറച്ചും കൂടി മുമ്പേ തന്നെ നമ്മളി ഇതിനകത്തിലേക്ക് കടന്നു വരണമെന്നുള്ളത് ഇന്നിപ്പോൾ ഇന്നീ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ആരുമില്ല ഇപ്പോൾ ഒരു തക്കാളിക്ക് വിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു പച്ചക്കറി വിക്ക് വിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും ഏതൊരു കടയിലോ സ്ഥാപനത്തിലോ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും ഈ ഫോൺ സ്മാർട്ട് ഫോൺ വഴിയുള്ള പൈസ ചെയ്ഞ്ചിങ് അത് വളരെ ഉപകാരപ്പെട്ട ഒരു മേഖലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു വളരെ നല്ല കാര്യം